ഹലോ ആ ഇത് ഗവൺമെൻറ്റ് ഓഫീസ് സ്റ്റാഫല്ലേ ആ ഞാനൊരു എനിക്ക് ഒരു രണ്ട് മൂന്ന് രാജ്യങ്ങളിലൊരു ട്രിപ്പ് പോകാനൊരു പ്ലാനുണ്ട് അപ്പോള് എനിക്ക് അവിടുത്തെ ലാംഗ്വേജും കാര്യങ്ങളുമൊന്നും അറിയില്ല അപ്പോള് നിങ്ങളുടെ അവിടെ അങ്ങനെ ഈ കൂടെയൊരാളെ വിടുമെന്നിങ്ങനെ കേട്ടിട്ടുണ്ട് അത് അതൊന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ആ അപ്പോള് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണത് ഒരു മൂന്ന് മാസത്തേക്ക് പക്ഷേ മൂന്ന് മൂന്ന് മാസത്തേക്കും ഒരു രാജ്യത്തല്ല കുറച്ച് ഒരു മൂന്നു നാല് സ്ഥലത്ത് പോകുന്നുണ്ട് ആ അപ്പോള് ആ ആ ത്രീ ലാക്കല്ലേ ആ ഹാ ഇല്ല ഇംഗ്ലീഷ് കുറച്ചറിയാം പക്ഷേ വേറെ സ്ഥലത്തൊക്കെ അവിടുത്തെ ലാംഗ്വേജല്ലേ അധികം അവര് സംസാരിക്കുക അപ്പോള് അതറിയുന്ന ഒരാളെ വേണം അത്യാവശ്യം എല്ലാ ഏകദേശം എല്ലാ ഭാഷയും അറിയുന്ന ഒരാളാണെങ്കില് ഉപകാരമായിരുന്നു

ഫോമല്ലേ അതിന് എന്തെങ്കിലും കൊണ്ടുവരണമോ നമ്മുടെ ഡീറ്റെയിൽസുള്ള എന്തെങ്കിലും കൊണ്ടുവരണമോ

ആ ഹാ ആ ആ ഓക്കെ ഓക്കെ അത്

ത്രീ ലാക്ക് വരുമല്ലേ ആ അപ്പോള് അവർക്കുള്ള ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ആ ആ ഇതിൻ്റെ ഈ ചെലവ് മാത്രമാണ് മൂന്ന് ലക്ഷം അല്ലേ ആ ആ ആ അപ്പോള് നിങ്ങളുടെ ഓഫീസ് എല്ലാ ദിവസവുമുണ്ടോ ബാക്കി എല്ലാ ദിവസവുമുണ്ട് ആ ഓക്കെ ഓക്കെ എന്നാല് ഞാനൊരു ദിവസം അവിടെ വന്നിട്ട് പ്രൂഫെല്ലാം കൊണ്ടുവരാം എന്നിട്ട് ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്ക്സ് ആ ആ